ഹലോ ഗുഡ് മോർണിംഗ് അതെ അതെ ഷീജ ട്രാവൽസ് ആണ് എങ്ങനെയാണ് എന്താണ് സഹായം വേണ്ടത് ഓക്കെ ഓക്കെ ഓക്കെ ആ അവിടെ ഞങ്ങൾക്ക് പല തരത്തിലുള്ള ട്രാവൽസുണ്ട് കാറുണ്ട് ഏത് തരത്തിലുള്ള വണ്ടിയാണാഗ്രഹിക്കുന്നത് ഏത് തരം ഇനി നിങ്ങളെത്ര പേരുണ്ട് പോകാന് ഉം ഓക്കെ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സർവീസായിട്ടുള്ളത് ഇൻഡിക്ക ഇതുണ്ട് പിന്നെ ഉണ്ട് പിന്നെ സ്വിഫ്റ്റുണ്ട് അങ്ങനെ വാഗണറിൻ്റെയുണ്ട് അപ്പോൾ ഏതാണെന്ന് നിങ്ങള് പറയുവാണെങ്കിൽ അതനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അറേഞ്ച് ചെയ്യാമായിരുന്നു ആ സ്വിഫ്റ്റ് ആ സ്വിഫ്റ്റ് അധിക റേറ്റൊന്നും ഇല്ല മീറ്ററിന് കിലോമീറ്ററിന് മുപ്പത് രൂപ വെച്ചാണേ ഞങ്ങളിവിടെ ചാർജ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് ആ അത് എന്നാല് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെയൊക്കെയാന്നറിഞ്ഞാല് കാരണം ഇപ്പോൾ അങ്ങനെയാണ് ഞങ്ങള് മീറ്ററ് കിലോമീറ്ററ് മുപ്പത് രൂപ വെച്ചാണ് എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നത് കേട്ടോ അ ഉം ആ എത്താം പക്ഷേ എന്നാലും ചിലപ്പോൾ ഒരു ആ നാല് മണിക്ക് കുഴപ്പമില്ല ആ നാല് മണിക്കെത്തുന്ന രീതിയിൽ ഞങ്ങളെത്താം അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോക്കായി പോകുമേ അപ്പോൾ നാല് മണിയാവുമ്പഴത്തേനും റെഡിയാവുകയാണെങ്കിൽ ഞങ്ങളെത്രയും അങ്ങനെ ആ ചെയ്യുന്നതായിരിക്കും അത് കുഴപ്പമൊന്നുമില്ല ഇത് ആ സീറ്റ് ഞങ്ങൾ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞങ്ങള് കോമണായിട്ട് നമ്മള് കൊടുക്കുന്നത് മുപ്പത് രൂപ വെച്ചാണേ റേറ്റ് മു കിലോമീറ്ററ് മുപ്പത് രൂപ വെച്ചാണ് ആ പക്ഷേ കുഴപ്പം ഇല്ല അത് ഞങ്ങൾ ചെയ്യാം അങ്ങനെയെങ്കിലത് നമുക്ക് അറേഞ്ച് ചെയ്യാം അതിനെ കുറിച്ചോർത്ത് ഇതൊന്നും വെക്കണ്ട ആ അതോർത്ത് ടെൻഷൻ വെയ്റ്റിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയാണ് ഞങ്ങളൊര് റേറ്റ് അവസാനം പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു ആ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പോകുന്നതിന് എവിടെയാണ് വീട്

ആ അതൊക്കെ ചെയ്ത് തരാം അതൊക്കെ ചെയ്ത് തരാം ഉം

ആ അപ്പോൾ തലേ ദിവസം എൻ്റെ ഈ വാട്ട്സ്ആപ്പിലെനിക്ക് ഇത് നമ്പര് തന്നെയാണേ വാട്ട്സ്ആപ്പ് നമ്പര് അപ്പോൾ അതിനകത്തോട്ട് ഈ പിന്നേ പ്ലേസും ഒന്നുംകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത്